നമ്മുടെ മാതൃഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് മലയാളം ഇന്ത്യൻ ക്ലാസിക്കൽ ലാംഗ്വേജുകളിൽ ഉൾപ്പെട്ട ഒരു ഭാഷയാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ഭാഷയാണ് മലയാളം ദ്രാവിഡിയൻ ലാംഗ്വേജ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരു ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് മലയാള സാഹിത്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലുടനീളം വളരെയധികം പ്രാധാന്യം ഉള്ള ഒന്നാണ് അതുകൊണ്ടുതന്നെ നമുക്ക് അഞ്ചിലധികം ജ്ഞാനപീഠ അവാർഡ് ജേതാക്കളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംഘം കാല നമ്മുടെ സംഘകാല കൃതികൾ മലയാളത്തിൻ്റെ ആദ്യകാലം കൃതികളായിട്ട് പറയാവുന്നതാണ് രാമചരിതമാണ് നമ്മുടെ ആദ്യ ആയിട്ടുള്ള നമ്മുടെ അറിവിൽ ആദ്യമായിട്ടുള്ള മലയാളം സാഹിത്യ കൃതി എന്ന് പറയുന്നത് അതിനു പുറമേ മലയാളവും സംസ്കൃതവും ചേർന്ന മണിപ്രബാള ഭാഷയിൽ നിരവധി കൃതികൾ നമ്മുടെ മലയാളത്തിലുണ്ട് സാഹിത്യത്തിലും കവിതയിലും മറ്റു കലാവിഷ്കാരങ്ങളിലും മലയാള ഭാഷ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് ആദ്യകാലങ്ങളിൽ കവിതകളിൽ പ്രധാനമായിട്ടും വിഷയങ്ങളെന്ന് പറയുമ്പോൾ സ്ത്രീകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുവാണ് ആദ്യം ആ വിവരിച്ചിരുന്നത് ചെറുശ്ശേരി എഴുത്തച്ഛൻ പൂന്താനം മുതലായ കവികൾ മലയാള ഭാഷയുടെ യ്ക്ക് നൽകിയ അവരുടെ കോൺട്രിബ്യുഷൻസന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് എഴുത്തച്ഛന് മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മലയാള സാഹിത്യം ആ കാലം വ അതിൻറ്റേതായ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ സാഹിത്യത്തിൽ കുറിച്ച് പറയുകയാണെങ്കിൽ മാ അത് പലപലത്തിലുള്ള ക കഥകൾ കവിതകൾ യാത്രാവിവരണങ്ങൾ സംവാദങ്ങൾ തുടങ്ങിയവ മലയാള ഭാഷയിൽ വിവിധ ഭാവങ്ങൾ രീതിയിലെഴുതാറുണ്ട് നമ്മുടെ മലയാള ഭാഷയെ നമ്മുടെ സംസ്ഥാനം മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാഷയിൽ തന്നെ വ്യത്യാസം ഓരോ സംസ്ഥാനം ഓരോ ജില്ലകൾ വരു ക്ഷമിക്കണം ജില്ല ഓരോ ജില്ലകളിലോട്ട് വരുമ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് അതിൻറ്റേതായൊരു വ്യത്യാസം വരാറുണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ജില്ലകളെടുക്കാണെങ്കിൽ പല വാക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മലയാള ഭാഷയിലുള്ള ജില്ല മാറുമ്പോഴുള്ള അല്ലെങ്കിൽ സ്ഥലം മാറുമ്പോഴുള്ള വ്യത്യാസം കൃതികളിലും വ്യക്തമായി കാണാം